ഹലോ ഹലോ ഇത് ബാജുബി ഓട്ടോഫ് മ വർക്ക് ഷോപ്പല്ലേ ഓട്ടോമോട്ടീവ് വർക്ക് ഷോപ്പ് ഹലോ ആ അവിടുത്തെ ടെക്നീഷ്യനാണൊ ആ ഓക്കെ ഞാൻ ഉണ്ടല്ലോ എൻ്റെ പേര് ആദിത്യാന്നാണ് ഞാൻ നിങ്ങളുടെ ഇവിടെ അടുത്ത് ഒരിടത്ത് ചോദിച്ചപ്പോൾ നിങ്ങളുടെ സർവീസ് സെൻ്ററാണ് ഏറ്റോം അടുത്തുള്ള വർക്ക് ഷോപ്പാണ് അടുത്ത ഏറ്റോവടുത്തുള്ളത് എന്ന് പറഞ്ഞു എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ വണ്ടി ഇപ്പോൾ ഞാനിപ്പോൾ എന്ത് എന്താണ് ഞാൻ ഇപ്പോൾ പാലക്കാട് ഹൈ വെ അതെ അതെ ഓക്കെ ഞാൻ ഇപ്പോൾ പാലക്കാട് ഹൈ വേ എത്തിയപ്പഴത്തേക്കും ബ്രേക്ക് പിടിക്കാൻ നോക്കിയപ്പോൾ ഒട്ടും ബ്രേക്ക് കിട്ടണുണ്ടായില്ല ഞാൻ എന്നിട്ട് എങ്ങനെയോ കഷ്ടപ്പെട്ട് എൻജിൻ ബ്രേക്കും ചെയ്ത് ഹാൻറ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ വണ്ടി സ്റ്റോപ്പിലേക്കെത്തിച്ചത് വണ്ടിയൊന്ന് നിർത്തിച്ചത് അത് മാത്രവല്ല വല്ലാണ്ട് ബ്രേക്ക് ഫ്ലൂയിഡ് പോലത്തെ എന്തോ മണം വല്ലാണ്ട് വരുന്നുണ്ട് പിന്നെ വണ്ടീടെ അടീന്ന് ലീക്കും വല്ലാണ്ട് കാണുന്നുണ്ട് അപ്പം ഞാനെന്ത ചെയ്യേണ്ടത് എനിക്ക് വേറാരെയും ചോദിച്ചപ്പം ഏറ്റോവടുത്തുള്ള ഓട്ടൊ വർക്ക് ഷോപ്പ് നിങ്ങടെയാന്ന് പറഞ്ഞു ഓട്ടോമോട്ടീവ് വർക്ക് ഷോപ്പ് അപ്പം എന്താണ് ചെയ്യേണ്ടത് ഒന്ന് വന്ന് നോക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടീട്ടൊന്ന് ആയിരുന്നു അതെ അതെ അതെ അതെ ഞാനാ സർവീസ് സ്പോട്ടിലേക്ക് കയറ്റി ഇട്ടിരിയ്ക്കയാണ്

ആ ഓ അതെ അതെ വല്ലാണ്ട് ബ്രേക്ക് ഞെങ്ങി പോകുവങ്ങട് ഇല്ലില്ല കൂടെ ഞാൻ മാത്രമേ ഉള്ളു അതെ അതെ ആ ഭാഗത്തൂന്നിങ്ങനെ ഫ്ലൂയിഡ് ലീക്കായി വരുന്നത് ടയറിലെ കൂടെ ഒക്കെ പാട് വരുന്നുണ്ട് അത് ലീക്കായതിൻ്റെ ആണല്ലേ ആ ഓക്കെ പക്ഷേ വണ്ടി സർവീസിലേക്ക് കൊടുത്തിട്ട് അധികവായിട്ടുണ്ടായില്ല ഒരു മാസം ആയുള്ളു അത് കയിഞ്ഞിട്ടിത് പെട്ടന്ന് പ്രശ്നം വന്നു അത് തന്നെ ആവില്ലെ ബ്രേക്ക് കാരണം ടയറിലൊക്കെ മൊത്തം ഒരു വെറ്റായിട്ടിരിക്കുന്നുണ്ട്

ആ ഉവ്വ് ആണല്ലേ ഓക്കെ ഞാനൊരു ശരിക്കൊരു അർജൻറ്റ് മീറ്റിങ്ങിന് പോവാനിരിക്കുവായിരുന്നു അപ്പോൾ ഒന്ന് പെട്ടന്ന് ആരേലുവൊരാളെ പറഞ്ഞ് വിടാൻ പറ്റുമോ ക പണി അറിയുന്നൊരാളെ ഓ ആ ഓക്കെ ആ ഈ വാ നമ്പറ് വാട്ട്സപ്പല്ലെ ആ ഓക്കെ ഓക്കെ സാർൻ്റെ പേരെന്താണ് ഉണ്ടോ ലൈക്ക് ഇങ്ങേ ഓ ഓ സാറാണല്ലെ ബാജുബി ഓക്കെ ഓക്കെ ഓണറാണല്ലെ ആ ഓക്കെ ആ താങ്ക് യൂ സാർ ആ അപ്പം ഒന്ന് പെട്ടെന്ന് വരുവാണെൽ നല്ലത് കാരണം ഞാൻ പറഞ്ഞത് ഒരു മീറ്റിങ്ങിന് പോവേണ്ടതായിരുന്നു കുറച്ച് അർജൻറ്റായിരുന്നു ആ ഓക്കെ ഞാൻ ഞാൻ ലൊക്കേഷൻ പെട്ടന്ന് തന്നെ അയച്ചരാം എത്ര മിനിറ്റെടുക്കും അവിടുന്ന് ആണല്ലേ ഓക്കെ ഓക്കെ ആ ഓക്കെ അര മണിക്കൂറ് കുറച്ചൂടീം പെട്ടെന്ന് വരാൻ പറ്റോ ആ രണ്ട് മിനിറ്റിലെത്താൻ പറ്റുവല്ലെ സാറെങ്ങനാണ് വരുന്നത് ഓക്കെ കാർലാണല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ സാറിന് ഞാൻ ലൊ ലൊക്കേഷൻ ഡീറ്റെയിൽസയച്ചരാം സാറ് ഇവിടെത്തീട്ടെന്നെ എന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റീല്ലെ ഒന്നെന്നെ വിളിക്ക് ഓക്കെ ഓക്കെ സാർ താങ്ക് യൂ ഓക്കെ സാർ സാറെന്തായാലും വന്നാൽ വിളിക്ക് ഞാൻ ഇവിടെത്തന്നെയുണ്ട് ഓക്കെ താങ്ക് യൂ